ഇപ്പോൾ വയനാട് ജില്ലയിൽ പൊതുവായായിട്ട് സ്ത്രീകൾ ഇപ്പോൾ വിദ്യാഭ്യാസത്തിലായാലും തൊഴിലിനായാലും എന്താ പറയാ സാമൂഹികനില എന്നിവയിലൊക്കെ അവരിന്ന് എന്താ പറയാ അവർക്ക് ലഭിക്കാതെ പോകുന്ന അവസരങ്ങളൊക്കെ ഇപ്പോൾ കൂടി കൂടി വരാണ് കാരണം വയനാട് ജില്ലയെന്നല്ല പൊതുവെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്ക് എന്താ പറയാ വിദ്യാഭ്യാസമൊന്നും അധികം പണ്ടുമുതലേ കണ്ടുവരുന്നില്ല കാരണം സ്ത്രീകളെക്കെ ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ അവരെ കെട്ടിച്ചുവിടും മെയ്നായിട്ട് മുസ്ലിംസൊക്കെയാണ് നമ്മളങ്ങനെ കണ്ടുവന്നേക്കുന്നത് അവർ പതിനെട്ടു വയസാകുമ്പോഴത്തേക്കും അവരെ കെട്ടിച്ചുവിടുക പിന്നെ അവർക്ക് വിദ്യാഭ്യാസം അങ്ങനെയുള്ളതൊന്നും ലഭിക്കുന്ന ലഭിച്ചോളണമെന്നൊന്നും ഇല്ല പിന്നെ അവരെ പണിക്കുവിടാനോ അങ്ങനെ എന്താ പറയാ വീട്ടിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക അങ്ങെനെയുള്ളൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും അപ്പോൾ അവർക്ക് തൊഴിലിനോടൊന്നും വലിയ ഇത് കൊടുക്കുന്നില്ല കാരണം അവർക്ക് തൊഴിലില്ലെങ്കിലും അവരെ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിലെ ചെ ചെറുക്കൻമാരൊക്കെ അവരെ ഭാവിയിൽ നോക്കിക്കോളും എന്നൊരു രീതിയിലാണ് സാധാരണ കണ്ട് വരുന്നത് പിന്നെ സമൂഹിക എന്താ പറയാ സാമൂഹിക നിലയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സമൂഹമായിട്ടൊന്നും അവർക്ക് അധികം ബന്ധം ഒന്നും ആരും കൊടുക്കുന്നില്ല കാരണം എല്ലാവരും വീട്ടിൽ തന്നെ അടച്ചൊറച്ച് എന്താ പറയാ അടച്ചിരിക്കയാണ് പുറത്തേക്കൊന്നും ആരും അങ്ങനെ അധികം വിടുന്നൊന്നും ഇല്ല അങ്ങനെയൊക്കെ കുറെ എന്താ പറയാ ഈ ഇന്ന് വയനാട്ട് ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും അങ്ങനെത്തന്നെയാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ കുറെ എന്താ പറയാ അസമത്വങ്ങളൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ ഞാൻ കാണാറുണ്ട്